മറ്റ് ഗ്രഹങ്ങളിൽ ബാഹ്യ ജീവൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനു കറക്റ്റായൊരു ഉത്തരം നമുക്ക് തരാൻ വേണ്ടി കഴിയുകയില്ല എന്നാൽ ശാസ്ത്രജ്ഞന്മാർ പലതും നിരീക്ഷിച്ചിട്ട് ചൊവ്വയിലാണോ വ്യാഴത്തിലാണോ എന്നു ചോദിച്ചാൽ ജീവൻ കണ്ടൂ എന്നാണ് പറയുന്നത് വെള്ളത്തിൻ്റെ അംശം കണ്ടൂ എന്ന് എന്നാൽ ഞാൻ എൻ്റെ സ്വന്തം കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്നത് ഭൂമിയെ പോലെ തന്നെ വേറെ ഒരു ഗ്രഹം എന്തായാലും ഉണ്ടാകുമെന്നും അവിടെയും ഇതുപോലെത്തന്നെ ഒരു ജീവൻ നിലനിൽക്കുന്നു എന്നും മനുഷ്യരും മനുഷ്യരെന്നാൽ നമ്മളെപ്പോലെ അല്ലെങ്കിലും നമ്മളെപ്പോലെത്തന്നെ എന്തെങ്കിലും ഒരു ലോകം അവിടെയും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ കൂടുതൽ നിരീക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊവ്വയിൽ ആണെന്ന് തോന്നുന്നു ഇനി വർഷത്തിനുള്ളിൽ ബഹിരാകാശത്ത് പോകാൻ എല്ലാവർക്കും ഒരു അവസരം ലഭിക്കുമെന്നും പറയപ്പെടുന്നു